ആ പറഞ്ഞോളു ആ ഓക്കെ പോസിറ്റീവ് ആണ് ആ ഓക്കെ ഓക്കെ പനിയാണോ ആ ഓക്കെ ആ പാരസെറ്റമോൾ എന്തെങ്കിലും ഈ ആശാ വർക്കർ അങ്ങനാരെങ്കിലും കൊണ്ടതന്നായിരുന്നോ കഴിക്കുന്നത് ആ ഓക്കെ ഓക്കെ ആ ഓ ഓക്കെ ആ ഓക്കെ ഓക്കെ ആ ആ ഇതിന് അങ്ങനെയാണല്ലേ ആ ഓക്കെ ഓക്കെ ഇതിന് വേറെ പ്രത്യേകിച്ച് മരുന്ന് കാര്യങ്ങളൊന്നൂല്ല ഭക്ഷണം കഴിക്കുന്നില്ലേ ഭക്ഷണം നല്ലോണം കഴിക്കണം ഈ സമയത്ത് ഭക്ഷണം ഇപ്പോൾ വേണ്ടാന്നൊക്കെ തോന്നും പക്ഷെ ഭക്ഷണം നല്ലോണം കഴിച്ചില്ലെങ്കിൽ നമുക്ക് പ്രതിരോധ ശേഷി കൊറയാണ് ചെയ്യാ ഇതിന് പ്രത്യേകിച്ച് മരുന്ന് കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ പാരസെറ്റാമോളുള്ളത് മൂന്ന് നേരായിട്ട് ഇപ്പോൾ നമുക്കെന്തെങ്കിൽ അസ്വസ്ഥതയൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പം മേല് വേദന അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പാരസെറ്റാമോള് കഴിച്ച് കഴിഞ്ഞാൽ അത് കുറയും ആ അപ്പം പാരസെറ്റാമോള് കഴിക്കുക ഭക്ഷണത്തിന് ശേഷം മാത്രമേ പാരസെറ്റാമോള് കഴിക്കാൻ പാടുള്ളൂട്ടോ ആ ഭക്ഷണം നല്ലോണം കഴിക്കണം ഇപ്പോൾ ഇന്ന ഭക്ഷണോന്നൊന്നും ഇല്ല ഏത് ഭക്ഷണം ഇപ്പം നോൺ വെജ് വെജ് അങ്ങനെയൊന്നും ഇല്ല ഏത് ഭക്ഷണോം നിങ്ങൾക്ക് കഴിക്കാം ആ പിന്നെ പിന്നെ വേറെന്ന് വെച്ചുകഴിഞ്ഞാൽ മാസ്ക് നിർബന്ധമായിട്ടും യൂസ് ചെയ്യാ പിന്നെ ഏട്ടനോടാണെങ്കിലും നിങ്ങളാണെങ്കിലും പുറത്തിറങ്ങാൻ ഒന്നും പാടില്ല ആ പതിനാലൂസം ക്വാറന്റൈൻല് ഇരിക്കണം പിന്നെ പതിനാലൂസം കഴിഞ്ഞിട്ട് കോവിഡ് ടെസ്റ്റ് ചെയ്യാ ഒന്നുകൂടി എന്നിട്ട് നെഗറ്റീവ് ആണെങ്കിൽ മാത്രം ഒരു രണ്ടോ മൂന്നോ ദിവസം ഒന്നുടെ വീട്ടിലിരുന്നതിന് ശേഷം മാത്രമേ ഇറങ്ങാൻ പാടുള്ളൂട്ടോ ഇനി അഥവാ പോസിറ്റീവ് ആണെങ്കിൽ വീണ്ടും പതിനാലൂസം ഇരിക്കണ്ടി വരും എന്നിട്ട് വേണം പിന്നെ ടെസ്റ്റ് ചെയ്യാൻ ആ ഓക്കെ എന്നാൽ വിളിച്ചാൽ മതി